കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഇന്നത്തെ ഈ ഇന്നത്തെ ഈ ഒരു സമയത്ത് പാരൻസും ടീച്ചേഴ്സും അതുപോലെ കുട്ടികളും ഒരേ പോലെ ശ്രമിച്ചാൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു വിജയം ഏതൊരു കുട്ടിക്കും നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇന്ന് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ സമ്പ്രദായൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ്റ് ഇമ്പ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് ഈ കോവിഡ് പാണ്ടമികിനുശേഷം ഓൺലൈൻ മേഖലയിലൂടെ ഒരുപാട് ഓപ്പർച്യുണിറ്റിസാണ് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്മെൻറ്റും പ്രൊവൈഡ് ചെയ്തോണ്ടിരിക്കുന്നത് അതുവഴി ഒരുപാട് ഇൻട്രസ്റ്റോടെ കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ ആയാസകരമായ പഠനം കൂടുതൽ ഈസിയാക്കി എടുക്ക് എടുത്ത് കൂടുതൽ നന്നാക്കിയെടുത്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യിക്കാനുള്ള ഒരുപാട് വിദ്യകൾ ഇന്ന് നമുക്കുണ്ട് പ്രധാനമായിട്ടും അവർക്ക് സ്ട്രെസ്സ് കൊടുക്കുന്ന സ്റ്റഡീസിലെല്ലാം കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ കുറച്ച് ഗെയിമിലൂടെ അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റായിട്ടുള്ള രീതിയിൽ വീഡിയോ ഗ്രാഫിക്ക് ചിത്രീകരണത്തിലൂടെയൊക്കെ അവരെ പഠിക്കാൻ അല്ലെങ്കിൽ പാട്ടുകൾ പോലെ പഠിക്കാനുള്ള ലെസ്സൻസ്സെല്ലാം ആക്കികൊടുത്ത് അതെല്ലാം കേൾപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഈസിയായിട്ട് അതായത് ബുദ്ധിമുട്ട് തോന്നിയ ഏതൊരു കാര്യം പോലും വളരെ ഈസിയായിട്ട് പഠിച്ച് അതിൽ നല്ല മാർക്ക് നേടാൻ അവർക്ക് കഴിയും പ്രത്യേകിച്ച് ഈ വിദ്യാ പഠനം ശാസ്ത്ര പഠനമൊക്കെ ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മാർക്ക് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും